ഈ പെട്രോളിൻ്റെ വില വര്ദ്ധന എന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വച്ചു കഴിഞ്ഞാൽ ഈ നൂറ്റിപ്പത്തിൻ്റെ അടുത്ത് വരെയാണ് ഒരു ലിറ്ററ് പെട്രോളിന് റേറ്റ് വന്നത് അത് വല്ലാത്ത ഇടങ്ങാറാണ് ഈ കൊറോണ ഇതേപോലെ നിപ്പയൊക്കെ വൈറസൊക്കെ വന്ന സമയത്ത് പണിയും കൂലി ഇല്ലാത്തവർക്ക് മറ്റേ പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഈ പൈസ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ പൈസയാണ് എറ്റവും കൂടുതൽ കൂടുന്നത് നൂറ്റി പത്ത് അതല്ലേ ഇപ്പം നൂറ്റി ഏഴ് പോയിൻ്റ് ആറ് അങ്ങനെ എന്തോ ആണ് പൈസ ഉള്ളത് അപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് പോവുമ്പോൾ വമ്പൻ പാടായിരുന്നു പിന്നേ അതിനേക്കാട്ടിയും ബെറ്റർ എന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ എല്ലാം എൽ പി ജി ഗ്യാസോ അതേപോലെ ഇലക്ട്രിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പൈസ ലാഭിക്കാം അതേപോലെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് വരാനില്ല പെട്രോൾ ആണെന്നു വച്ചു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിക്ക് മെയിൻ പ്രശ്നം വരുന്നത് വച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്രോള് കറക്റ്റ് ആയി അടിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും ഇതാവുമ്പം നമ്മൾക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് ആവുമ്പം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ പൈസ കുറവാണ് അതേപോലെ ഇലക്ട്രിക്കൽ ആവുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് പേടിക്കുകയേ വേണ്ട നമുക്ക് സോളാറ് വച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വരില്ല അത് വെയിലത്ത് വച്ചതാവും പിന്നെ സോളാറ് വർക്ക് ആവാത്ത ചില സമയത്ത് ഈ മഴക്കാല അവസ്ഥകളൊക്കെ നമുക്ക് കറണ്ടിൽ നിന്നെടുത്തു കഴിഞ്ഞാലും അധികം ബില്ല് വരില്ല പെട്രോളിനെ കാട്ടിയും ബെറ്റർ ആയിട്ട് ഗ്യാസും ഇതും ഇലക്ട്രിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും ബെറ്ററ് വണ്ടികള് പെട്രോളിന് വമ്പൻ റേറ്റ് ആണല്ലേ പെട്രോളിൻ്റെ പൈസ കുറക്കേണ്ടതാണ്